ബൈക്ക് യാത്ര എന്നു പറയുമ്പോൾ ഇതു സ്ഥിരമായി ആളുകൾ നടത്തുന്നൊരു യാത്രയാണ് ബൈക്ക് യാത്ര കാരണം മറ്റു യാത്രകളെക്കാളെല്ലാം സുഖപ്രദമാണ് ബൈക്കില് യാത്ര ചെയ്യുക എന്നുള്ളത് പ്രത്യേകിച്ച് ഒറ്റയ്ക്കു യാത്ര ചെയ്യാൻ ബൈക്കിനേക്കാൾ സുഖകരമായൊരു വണ്ടി വാഹനം അതൊന്നു വേറെയില്ല കാരണം കാറാകുമ്പോൾ അതു യാത്ര സുഖമാണ് പക്ഷെ അതിനു ചിലവുകളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോള് ബൈക്കിനേക്കാള് കൂടുതലാണ് ബൈക്കാവുമ്പോൾ ചിലവു കുറവും ഒരാൾക്കിരിക്കാനുള്ള രീതിയില് നല്ല രീതിയിൽ യാത്ര ചെയ്യാനും പറ്റും അപ്പോള് ബൈക്കില് നമ്മള് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ദുര്ഘടമായ പാതകളിലൂടെ യാത്ര ചെയ്യും കാറിന് വലിയ വഴി ആവശ്യമാവുമ്പോൾ ബൈക്ക് ചെറിയ വഴികളിലൂടെ പോകും അതുകൊണ്ടുതന്നെ എത്ര ബുദ്ധിമുട്ടിയും നമ്മുടെ ബൈക്കില് പോകും പ്രത്യേകിച്ച് ബൈക്കുകളിലെ പല ഷോക്കബ്സോര്ബറുകളുള്ള റൈഡിംഗ് ബൈക്കുകൾ മഡ് ബൈക്കുകൾ അതുപോലെ മലകയറാനുള്ള ബൈക്കുകൾ ഇത്തരത്തിൽ പല ബൈക്കുകളും അതിൻ്റെ സാഹചര്യത്തിലാണു വരുന്നത് ഇപ്പോള് നമ്മള് നോക്കുകയാണെങ്കില് അവിടെ ഹിമാലയ പോലുള്ള വാഹനങ്ങളൊക്കെ ഇത്തരത്തില് അഡ്വഞ്ചറസായ യാത്രകള് ചെയ്യേണ്ടതാണ് അപ്പോള് ഞാനേറ്റവും ദുർഘടമായ പാതകളിലൂടെ സഞ്ചരിച്ചത് എന്നു പറയുന്നത് ഒരിക്കൽ ഞാന് ഒരു യാത്ര ചെയ്യുന്നതിനിടയിലാണ് അന്ന് തൃശ്ശൂര് ടോള് കയറാതിരിക്കാൻ വേണ്ടി മറ്റൊരു വഴി തിരഞ്ഞെടുക്കുകയായിരുന്നു ഗൂഗിൾ മാപ്പിൽ നോക്കി എന്നാല് ആ വഴിയിലൂടെയുള്ള യാത്ര വളരെ ബുദ്ധിമുട്ട് രുന്നു ഒട്ടും ടാര് ചെയ്യാത്ത പൊട്ടിപ്പൊളിഞ്ഞ കുണ്ടും കുഴികളുമുള്ള ഒരു വഴിയിലൂടെ ആയിരുന്നു യാത്ര പ്രത്യേകിച്ചന്നു മഴ കൂടിയായതുകൊണ്ട് തന്നെ ഒരിക്കലും എവിടെയാണു കുഴിയെന്ന്ുമനസ്സിലാക്കാൻ പറ്റാത്ത രീതിയില് വളരെ ദുർഘടമായ പാതയായിരുന്നു അന്നു യാത്ര ചെയ്തിരുന്നത് അപ്പോള് അന്നു മനസ്സിലായതാണു ദൂരമൽപ്പം കൂടിയാലും വഴി നല്ലതാണിത് നല്ല വഴി തിരഞ്ഞെടുക്കുന്നതാണു നല്ലത് അല്ലെങ്കില് ടോല് കൊടുക്കേണ്ടി വന്നാലും നമ്മളാ വഴിയിലൂടെ തന്നെ പോകുന്നതാണ് നല്ലത് കാരണം ഉൾ വഴികൾ എത്ര മാത്രം മോശമാണെന്നു നമുക്കു പറയാൻ സാധിക്കില്ല പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആണെങ്കില് പറയുകയേ വേണ്ടല്ലോ വഴികളിലെ കുഴികള് നമ്മുടെ കേരളത്തിൽ എത്ര മാത്രം ഉണ്ടെന്നു നമുക്കറിയുന്നതാണ് അപ്പോ എനിക്കു യാത്രയിൽ നിന്നു കിട്ടിയൊരു പാഠമാണ് നല്ല വഴിയിലൂടെ യാത്ര ചെയ്യുക നന്നായിട്ടു യാത്ര ചെയ്യുക